ഹലോ മോനെ എനിക്ക് ഒരു സ്മാട്ട് വാച്ച് വേണമായിരുന്നു ബോട്ട് കമ്പനിയുടെ അപ്പം അതിൻ്റെ എൻ്റെ ബഡ്ജറ്റെന്ന് പറയുന്നത് ഒരു മൂവായിരത്തിൽ നിൽക്കണം അതിന് എന്നു വച്ചാൽ നമുക്ക് പാട്ട് കേൾക്കണം കാൾ വന്നാൽ അറിയാൻ പറ്റണം എല്ലാം ഉള്ള ഇതായിരിക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഓൺലൈനിൽ എങ്ങനെ അത് ബുക്ക് ചെയ്യുന്നത് അത് ഞാൻ എവിടെയാണ് മോൻ എന്നെ കുറിച്ചു അറിയാലോ അപ്പോൾ മോൻ കുറിച്ച് ഒന്നെനിക്ക് ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് ബ്രാൻഡാണ് മുന്നിൽ നിൽക്കുന്നത് അതൊക്കെ ഒന്ന് എനിക്ക് ഒന്ന് പറഞ്ഞു തരണേ